കേരളം എന്നത് കേരളീയരുടെ രാജ്യമാണ് മാവേലി തമ്പുരാൻ്റെ നാട് വാണിടുണ കാലം മുതൽ നില നിന്നിരുന്ന സംസ്കാരത്തെ പിന്തുടർന്ന് ജീവിച്ച് വരുന്നവരാണ് മലയാളികൾ അപ്പം എവിടെ ചെന്ന് ഇന്ത്യയിൽ എവിടെ ചെന്നാലും മലയാളി എന്നൊരു ഇതിൽ നമുക്കറിയാൻ സാധിക്കും ഏത് രാജ്യത്ത് പോയാലും അവിടെ മലയാളികളുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് സാംസ്കാരിക സ്വതത്ര രൂപപ്പെടുന്നതിനും മലയാള ഭാഷയ്ക്ക് നിരവധിയായ പങ്കുണ്ട് ആശയങ്ങൾ കൈമാറും കൈമാറി ആശയങ്ങൾ കൈമാറി അതിൽ നിന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഭാഷ അത്യന്താപേക്ഷിതമാണ് കാര്യങ്ങൾ പങ്കുവെക്കാനും വളർച്ചയ്ക്കുവേണ്ടി ഭാഷ അത്യന്താപേഷിതമാണ് ഭാഷയില്ലാതെയുള്ളൊരു കേരളത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല മലയാളിയുടെ മലയാള ഭാഷയും സംസ്കാരങ്ങളും ഭാഷയാൽ രൂപപ്പെടുന്നതാണ്